ആ ഇത് ഓട്ടോ റിക്ഷ ഓടിക്കുന്ന രാജേന്ദ്രൻ ചേട്ടനല്ലേ ആ അതെ അതെ അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രെയിനിന് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ആ ആ അതെ അതെ അപ്പോൾ ഒന്നിവിടം വരെ വരാൻ പറ്റുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറ്റില്ലാ അല്ലേ ആ ഇത് രാത്രി ആയത് കൊണ്ടാണോ അപ്പോൾ ഇവിടെ എവിടേയും ഓട്ടോ റിക്ഷ ഒന്നും കാണുന്നില്ല അതാണ് ഞാൻ ചോദിച്ച് നോക്കിയത് ആ അവിടെ തന്നെ ഉണ്ടാകും ആ ഇവിടെ മറ്റേ ആ പ്ലാറ്റ്ഫോമിൻ്റെ ആ വരുന്ന വഴിക്കല്ലേ അവിടെ ബുക്ക് ചെയ്താൽ മതി അല്ല പക്ഷെ ഇവിടെ ഓട്ടോ റിക്ഷ ഒന്നും കാണുന്നില്ല അവിടെ വിളി അവിടെ അപ്പോൾ ചെന്ന് നമ്മൾ പറഞ്ഞാൽ മതിയോ ഓക്കെ ആ ആ ആ ഇല്ല ഓട്ടോ റിക്ഷ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ക്യാബ് ഏജൻസി അതിൻ്റെ നമ്പറൊന്നും എൻ്റടുത്തില്ല ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് തരുമോ എനിക്ക് അഥവാ ഓട്ടോ റിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ വല്ല ക്യാബോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി മറ്റേത് ഇവിടെ ചെന്ന് പറഞ്ഞാൽ മതിയല്ലേ വണ്ടിയുണ്ടോ ഓട്ടോ ഉണ്ടോയെന്നൊക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ